നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും ഉപയോഗിക്കേണ്ട ഒരു വസ്തുവാണ് ഹെൽമെറ്റ് അതിപ്പോൾ രണ്ട് പേർ ഉണ്ടെങ്കിലും മൂന്ന് പേർ ഉണ്ടെങ്കിലും ഹെൽമെറ്റന്നെ യൂസ് ചെയ്യണം അങ്ങനെ നമ്മൾ പോകുന്ന സമയങ്ങളിൽ പോലീസ് വല്ലതും പിടിക്കുവാണെങ്കിൽ നമ്മുടെ കയ്യിൽ വേണ്ട ബുക്കുകളാണ് ആർ സി ബുക്ക് ലൈസൻസ് പുക പരിശോധിച്ച പേപ്പർ പിന്നെ നമ്മുടെ ഒരു വർഷം ആവുമ്പത്തേക്കും ഇത് ചെയ്യും അത് എടുക്കണം അങ്ങൻത്തെ കുറെ പേപ്പറുകളൊക്കെ നമ്മൾ കയ്യിൽ എടുക്കണം പിന്നെ ബൈക്കൊരിക്കലും നല്ല സ്പീഡിൽ ഓടിക്കാൻ പാടില്ല കാരണം ആക്സിഡൻറ്റായ തലയും കുണ്ടിയൊക്കെ പോകും അപ്പം നമ്മൾ സൂക്ഷിച്ച് വേണം വണ്ടി ഓടിക്കാൻ സൂക്ഷിച്ച് വണ്ടി ഓടിച്ചില്ലെങ്കിലോ നമ്മളെ വീട്ടുകാർക്കും നമുക്കും തന്നെ നഷ്ടം കാരണം ഒരു വണ്ടി ഓടി വാങ്ങാൻ വേണ്ടി ഒരു ലക്ഷം ആകും എങ്കിലും നമ്മളെ വണ്ടി ഇടിച്ച് കഴിഞ്ഞാൽ ഒരു കോടിക്ക് മേലെയാവും അത്രയ്ക്ക് രൂപയാവും ഗായിസ് നമ്മൾ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഫാമിലീൻ്റെ കയ്യിലായിരിക്കും നമ്മൾ പൈസ പൊട്ട കാരണം നമ്മൾ കയ്യിന്ന് ഒരിക്കലും പൊട്ടില്ല അതുകൊണ്ട് ഫാമിലീൻ്റെ കയ്യിന്ന് പൈസ പൊട്ടിക്കാതിരിക്കണം എങ്കിൽ നമ്മൾ സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക സൂക്ഷിച്ച് വണ്ടി ഓടിച്ചാൽ മാത്രമേ നമ്മൾക്ക് നമ്മൾക്ക് എപ്പോഴും നല്ലതായി പൂവാൻ പറ്റോള്ളൂ അങ്ങനെ വേണം ഇതാക്കാൻ നമ്മൾ എപ്പോഴും ഹെൽമറ്റും ജാക്കറ്റും എല്ലാം ഇട്ടിട്ട് വേണം വണ്ടി ഓടിക്കാൻ ഓക്കെ ഗായ്സ്